ഇപ്പോൾ സ്റ്റാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇങ്ങനത്തെ സ്റ്റാമ്പുകളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നമ്മള് ചിലപ്പോൾ ഇതൊക്കെ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും അറിയുള്ളൂ അപ്പൊ അവര്ടെ ഒരു വിദ്യാഭ്യാസത്തിനും നമ്മളതൊരു മുതല്ക്കൂട്ട് നല്കുന്നുണ്ട് നമ്മളെ വിദ്യാഭ്യാസത്തിനും ഒരു മുതല്ക്കൂട്ട് നല്കുന്നുണ്ട് അങ്ങനെ പലരീതിയിലും നമ്മളവരെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഇങ്ങനത്തെ സ്റ്റാമ്പുകള് കാര്യങ്ങളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് എന്നുതന്നെ ഇപ്പോൾ ആ ഇതിലൊക്കെ നോക്കുമ്പോഴായിരിക്കും നമ്മളിതൊക്കെ വാങ്ങി ഒട്ടിച്ചു വച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മളിതൊക്കെ കാണുന്നതു തന്നെ അപ്പോൾ പലരീതിയിലും ആ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ നാണയങ്ങള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അണയും കാര്യങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടുതന്നെ ഉണ്ടാവില്ല പക്ഷെ ഇതിനൊക്കെ ഒരു റൌണ്ടും കാര്യങ്ങളും ഇപ്പോഴത്തെ രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രൂപ മൂന്ന് രൂപ ഒരു രൂപ ഇപ്പോൾ അമ്പതു പൈസ വരെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാണാന് കിട്ടാത്തൊരവസ്ഥയാണ് ഇരുപത്തഞ്ചു പൈസയൊക്കെ ഈ അടുത്തൊരു കാലത്താണു നിരോധിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ അതായത് അത് ചെറിയൊരു വട്ടത്തില് ഇരുപത്തഞ്ച് പൈസയെന്നു പറഞ്ഞിട്ടാണു എഴുതിയിട്ടുണ്ടാവുക അതൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാന് കിട്ടാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കേയും ആണ് ഇപ്പോൾ അമ്പത് അമ്പതു പൈസപോലും ആരും എടുക്കുന്നില്ല അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതു കാണുമ്പോൾ തന്നൊരു ഇതാണ് കാരണം ഇങ്ങനത്തെ പൈസകളൊക്കെ ആയിരുന്നല്ലോ നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് എന്ന് നമ്മൾക്ക് വേണമെങ്കില് പറയാന് വേണ്ടി സാധിക്കും